ഹലോ അ പറഞ്ഞോളൂ

ആ ഓക്കെ ഓക്കെ പറഞ്ഞോളൂ മനസ്സിലായി ആ ആ നമുക്ക് എന്തെല്ലാം ഗോൾഡ് ഒക്കെയാണ് ഉള്ളത് ആ ഓക്കെ നമ്മളിപ്പം മുപ്പത്തേഴ് ഇരുന്നൂറാണ് പവന് കൊടുക്കുന്നത് ആ ഓക്കെ അഞ്ച് പവനല്ലേ നിങ്ങൾക്കുള്ളത് ആ ഓക്കെ നമുക്കിപ്പം പവന് മുപ്പത്തേഴ് ഇരുന്നൂറ് വച്ച് മാക്സിമം ചെയ്യാം നിങ്ങൾക്ക് എത്രയാണ് അമൗണ്ട് വേണ്ടതെന്ന് വല്ല ഇതുമുണ്ടോ ആ ഓക്കെ ഓക്കെ അഞ്ച് പവന് അപ്പം നമുക്ക് അത്രയും കിട്ടാൻ ചാൻസ് ഇല്ല നമുക്ക് വല്ല സ്ഥലം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒര് പത്ത് പവനെങ്കിലും നമുക്ക് മിനിമം വേണ്ടി വരും നമുക്ക് അത്രയും ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പേരിലുണ്ടോ ആ വീടും സ്ഥലവും ഉണ്ടാവും അല്ലേ അതിൻ്റെ നികുതിച്ചീട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം നമ്മള് നാല് ശതമാനം ഇൻറ്ററസ്റ്റിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അഞ്ച് വർഷം വരെ മാക്സിമം നമ്മൾ ചെയ്ത് തരും അതപ്പം മന്ത്ലി മന്ത്ലി പേയ്മെൻറ്റ് ചെയ്താൽ മതി ആ നിങ്ങൾക്ക് വീക്കെൻഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനേയും ചെയ്യാം ആ ഓക്കെ അപ്പം നമ്മൾ ഇൻറ്ററസ്റ്റില് എന്തെങ്കിലും കുറച്ച് തരാം നേരത്തേ ഇതാക്കുവാണെങ്കിൽ നമുക്ക് ഇൻറ്ററസ്റ്റിൽ എന്തേലും ചെയ്ത് തരാൻ പറ്റും ആ പിന്നെ നമുക്ക് വീട് വെക്കാൻ അങ്ങനെ എന്തിനേലും ആണോ ആ ബിസിനസ്സിന് വേണമെങ്കിൽ നമുക്ക് വേറെ ലോൺ നമ്മള് ഇതാക്കി തരുന്നുണ്ട് അതിനാണ് ഞാൻ ചോദിച്ചത് വല്ല നികുതി ചീട്ടോ ഒക്കെ കൊണ്ടുവരുവാണേൽ സ്ഥലത്തിൻ്റെ ഇതിന് എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സിന് അങ്ങന വേണേ വേറെ ലോൺ നമ്മള് ചെയ്ത് തരാം നിങ്ങൾ ബാങ്കിലേക്ക് എന്തെങ്കിലും ആ ഓക്കെ നിങ്ങള് നാളെ എന്നാൽ ബാങ്കിലേക്ക് ഒന്ന് വന്നാൽ മതി നമ്മള് ചെയ്ത് തരാം ആ നിങ്ങള് സ്ഥലത്തിൻ്റെ നികുതി ചീട്ടും കാര്യങ്ങളൊക്കെയായിട്ട് വന്നാൽമതി വേണ്ട വേണ്ട ഇത്രയും പ്രൂഫ് മതി നമുക്ക് നിങ്ങളുടെ പേരിൽ എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുവരാൻ പറഞ്ഞേ ആധാർ കാർഡ് കൂടെ കൊണ്ടുവരണം ആ ആധാർ കാർഡ് കൊണ്ടുവരണം ആ അത്രയും പ്രൂഫ് മതി എന്നാൽ ഓക്കെ നാളെ വരുമ്പം ഇത് കൊണ്ടുവന്നാൽ മതി ഓക്കെ എന്നാൽ